ഹലോ വാകത്താനം പോലീസ് സ്റ്റേഷൻ ആണോ എന്റെ പേര് സാറേ അരുൺ എന്നാണ് അരുൺ സീ ജോൺ എന്റെ വീട്ടു പേര് ചിറക്കൽ ഞാൻ ഇവിടെ വാകത്താനം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ തോട്ടയ്ക്കാട് ചിറക്കൽ വീട്ടുപേരാണ് എന്റെ വീട്ടുപേര് ഞാൻ സാറേ വിളിച്ചത് എനിക്ക് ആ ആ ഞാൻ എന്നാ സാറേ വിളിച്ചത് ഞാൻ എൻ്റെ വീട് എനിക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് എനിക്ക് ഒരു കാശ്മീർ വരെ ഒന്ന് പോവണാമായിരുന്നു അപ്പോൾ ഞാൻ ഈ വരുന്ന ശനിയാഴ്ച്ച പോവാനായിട്ടാണ് ഇരിക്കുന്നത് ഒരു രണ്ടാഴ്ച്ച ഞാൻ അവിടെ കാണുകയില്ല ഞാൻ ഫാമിലിയോടു കൂടിയാണ് പോകുന്നത് അന്നേരം എനിക്ക് ഇങ്ങനെ ഒരു വാർത്ത ഞാൻ ഇങ്ങനെ കേട്ടു എവടേലും പോവുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നുള്ളത ഇതെങ്ങനെയാണ് സാറേ എഴുതിത്തരണോ അതോ ഫോണിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മതി ആ ആ വീട് ലോക്ക് ചെയ്തിട്ടായിരിക്കും പോവുന്നത് ആ ഓക്കെ ഓക്കെ ഞങ്ങളുടെ അടുത്ത് ഒരു ആ രണ്ട് അവരുടെ മതിയല്ലോ അല്ലേ ആ ഹാ ആ ഉള്ളതൊക്കെ ഞാൻ ലോക്കറിലേക്ക് മാറ്റാനായ്ട്ട് ചെയ്യുന്നുണ്ട് അതിനുള്ള സജീകരണങ്ങളക്കെ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നടക്കും ആ ഇല്ല ഇല്ല നല്ല പൂട്ട് ലോക്കുകളാണ് കുഴപ്പമില്ല

ഓക്കേ സാറേ ഓക്കേ ആ ഇല്ല ഞാൻ അടുത്താണ് അവരുടെ ബെന്നി എളങ്കാവിലാണ് നമ്പർ ആ ഓക്കെ ഓക്കെ ഓക്കെ

ഞങ്ങൾ ഒരൂ ഗ്രൂപ്പ് ആയിട്ടാണ് ഞങ്ങളുടെ കേഎലെമ്മിൽ നിന്നാണ് പോകുന്നത് അന്നേരം എല്ലാ കേഎൽഎമ്മിൽ നിന്നുമുള്ള ആൾക്കാർ കാണും കേഎലെമ്മിലുള്ള എല്ലാ അംഗങ്ങളും അവരുടെ ഫാമിലിയോടു കൂടി ആണ് ട്രിപ്പ് പോകാൻ അങ്ങനെയാണ് വരുന്നത് നെയ്ബേഴ്സ്സ് ആ ഉണ്ട് രണ്ട് മൂന്ന് വീട്ടുകാരുണ്ട് റിലേറ്റീവ്സ്സ് ആരുമില്ല ഇവിടെ അടുത്ത് ആ ആ ശരി ഓക്കെ ശരിയാണ് ഓക്കെ ഓക്കെ ശരി സാറേ ഇത് ഞാൻ എത്തിഇത് തിരിച്ചു വന്നു കഴിയുമ്പം ഇതിന് എന്തെങ്കിലും ചെയ്യണോ അതോ തിരിച്ച് വന്നു എന്നെ അറിയിക്കുമോ ഇത് ഉം ആ ഹാ ഹാ ആ ഹാ ആ ഇനി ഈ ഇനി ഈ ആ ഓക്കെ ഞങ്ങൾ ഹാ വേറെ എന്തെങ്കിലും സാ പുറത്ത് മുന്നിലുള്ള ഒരു വീട്ടിലുണ്ട് സൂക്ഷിക്കാൻ ആ ആ അതേ ഓക്കേ ആ ശരി ഇതൊന്ന് പറഞ്ഞേക്കാം ആ ആ ഓക്കെ ശരി ശരി സാറേ പോവുന്നതിന്നാണ് ഓക്കെ ഓക്കെ